തീർച്ചയായിട്ടും നമ്മുടെ മൃഗങ്ങൾക്ക് നമ്മളോട് നല്ല സഹകരണം ഉണ്ട് അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം അകത്ത് കയറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യാറുണ്ട് കൊടുക്കുന്ന ഫുഡുകൾ കഴിക്കാറുണ്ട് അതിന് പേരിട്ടിട്ടുണ്ട് ഡുണ്ടു മോൾന്നാണ് പേര് ഇട്ടിരിക്കുന്നത് ഒരു പൂച്ചകുഞ്ഞാണത് അത് വളരെ സ്നേഹമാണ് നമ്മളോടൊപ്പം അത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമ്മളുടെ മടിയിൽ കയറി ഇരിക്കുക നല്ല സ്നേഹമുള്ള ന ഒരുപാട് നാം അതിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് അവരെ പരിപാലിക്കുന്നൊരു രീതിയിൽ നമ്മളവരെ കുളിപ്പിക്കാറുണ്ട് കൃത്യമായ സമയത്ത് അവർക്ക് വേണ്ട ഫുഡുകൾ കൊടുക്കാറുണ്ട് കൃത്യമായ ഇഞ്ചക്ഷൻസ് അവരെ കൊണ്ട് എടുപ്പിക്കാറുണ്ട് അതായത് മറ്റാർക്കും അതുകൊണ്ടൊരു ബാധ്യത ആവരുത് അതുകൊണ്ട് നമ്മളതിന് കൃത്യമായിട്ട് ഉള്ള കൂടിലാണ് വച്ചിട്ടുള്ളത് നമ്മൾ കൃത്യ ഇൻറ്റെർവൽസിൽ അതിന് മരുന്നുകൾ കൊടുക്കാറുണ്ട് അതിന് എന്തെങ്കിലും അസുഖം വന്നുകഴിഞ്ഞാൽ നമ്മളതും പോയി ചികിൽസിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം കെയർ കൊടുത്തിട്ട് തന്നെയാണ് ഒരു മൃഗങ്ങൾ നമ്മുടെ വീട്ടിലുള്ള മൃഗത്തിനെ വളർത്തുന്നത് ഒരു പൂച്ചയാണെങ്കിൽ പോലും അത് നല്ല രീതിയിലുള്ള നമ്മളോട് സഹകരിച്ച് നമ്മളോട് ഭയങ്കര സ്നേഹപരിപാലനത്തോടെ നം ആരെയും ഉപദ്രവിക്കാനോ ഒന്നും അല്ലാത് വളരെ സ്നേഹത്തോടെയാണ് നമ്മളും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഒരിക്കലും നമ്മളെ ഉപദ്രവിച്ചിട്ടൊ ഒന്നുമില്ല നല്ല സ്നേഹത്തോടെ തന്നെയാണ് തിരിച്ചും പെരുമാറണത് നല്ല സഹകരണമുള്ള ഒരു പൂച്ചകുഞ്ഞാണത് ഞങ്ങൾ പരിപാലിക്കുന്ന പല രീതിയിലാണ് നമ്മൾ കിടത്തുന്ന കട്ടിലാണെങ്കിൽ തണുപ്പൊക്കെയുള്ളപ്പം നമ്മളൊരു കമ്പിളിയൊക്കെ കൊടുത്താണ് കിടത്താറ് അതിന് ചൂടും കിട്ടാൻ വേണ്ടീട്ട് അങ്ങനുള്ള സാഹചര്യങ്ങളിൽ ഒരു കൂട് അങ്ങനെയെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന മെതേഡ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു പൂച്ചക്ക് വേണ്ട സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട് നല്ല രീതിയിലുള്ള ഫുഡും കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പൂച്ചേനെ പരിപാലിക്കുക